ഹലോ

ആ പറഞ്ഞോളൂ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണോ ആ എന്താണ് ഇത്ര വൈകിയത് എന്തായിരുന്നു

അപ്പോൾ ആ ഓക്കേ ഓക്കേ കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഏകദേശം സീറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല ഒരു കുട്ടിയല്ലേ ഉള്ളൂ ആ ഓക്കേ നമുക്ക് ചേർക്കാൻ വേണ്ടി പറ്റും കുഴപ്പമില്ല നാളെത്തന്നേ വന്ന് അഡ്മിഷൻ എടുത്താൽ മതി ഇപ്പോൾ കുറേ പോഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി അപ്പോൾ അതൊന്ന് റിവിഷൻ വേണ്ടിയിട്ട് ഞാൻ ടീച്ചറിനോട് പറയാം

ആ ഓക്കേ ആ ആ കുഴപ്പമില്ല അവിടെ ടീച്ചർ ആയിട്ടാണോ ആ ഓക്കേ കുഴപ്പമില്ല നാ നാളെ ലീവ് ആണ് അപ്പോൾ മറ്റന്നാൾ വന്നിട്ട് എടു ചേർത്താൽ മതി അപ്പോൾ ടി സിയും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവരണം

ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ചെയ്യാം ഇല്ലെങ്കിൽ പുറത്തു നിന്ന് വേണമെങ്കിൽ ചെയ്യാം കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ആ അത് വരും അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ എമൗണ്ട് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള അളവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തുതരും കുട്ടീനെ എന്തായാലും മറ്റന്നാൾ മറ്റന്നാൾ എന്തായാലും കൊണ്ടുവരില്ലേ മറ്റന്നാൾ കുട്ടീനെ കൊണ്ടുവരില്ലേ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ആ അതെ അതെ

ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ വന്നാൽ മതി ഓക്കേ എന്നാൽ